ആ ഇത് അർജുൻ ട്രാവൽ ഏജൻസി അല്ലേ ആ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുമായിട്ട് സംസാരിച്ചായിരുന്നല്ലോ ആ ഞാൻ ആ മല്ലപ്പള്ളി ആലിക്കാട്ടിന്നാണ് ആ അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഗവി വരെയൊന്ന് പോകണം എനിക്കൊരു ഡ്രൈവറെ വേണം വണ്ടി എൻറ്റേലുണ്ട് എനിക്കൊരു ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞല്ലോ ആ രാവിലെ ഏഴ് മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത് എട്ടര മണിയായി എട്ടര മണിയായല്ലോ പക്ഷേ ഇതുവരേം ഡ്രൈവറെത്തീട്ടില്ല ഞങ്ങൾ രാവിലെ ഒരു പ്രോഗ്രാം ചെയ്തതല്ലേ വൈകീട്ട് തന്നെ തിരിച്ച് വരണ്ടെ ഡ്രൈവർ ഇതുവരെ എത്തീട്ടില്ലല്ലോ ഞങ്ങൾ ഞങ്ങളധികം ആളൊന്നുമില്ല ഞങ്ങളൊരു ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളു പിന്നെ വ നമ്മളൊരു ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞു വിടാമെന്നും പറഞ്ഞു വരുമെന്നും പറഞ്ഞു പക്ഷേ ഡ്രൈവറെ വിളിച്ചു ഡ്രൈവറെ ഞാൻ രാവിലെ ആറ് മുക്കാൽ മുതൽ വിളിച്ചോണ്ടിരിക്കയാണ് ഇതുവരെയായിട്ട് ആളെത്തിട്ടില്ല മണി ഇപ്പം എട്ടരയായി അല്ലിങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് വരുമ്പോൾ ഒരു സമയമാവില്ലേ

ഡ്രൈവർക്ക് സുഖമില്ലേ അത് നിങ്ങളിപ്പം ഡ്രൈവർക്ക് സുഖമില്ലെങ്കിൽ നിങ്ങൾ വേറെ ഡ്രൈവറെ നമുക്ക് വിട്ടു തരണ്ടേ അങ്ങ് ഞാനൊരു ഏജൻസി വഴി ഒരു ഡ്രൈവറെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്ന ഡ്രൈവറ് വരുന്നില്ല എങ്കിൽ ആ ഡ്രൈ ഡ്രൈവർക്ക് പകരം നിങ്ങൾ വേറെ ആളിനെ വിടണം വണ്ടി ഓടിക്കണ്ടേ എനിക്കാ അല്ലല്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രോഗ്രാം നടക്കത്തില്ലല്ലോ അല്ലെങ്കിൽ എനിക്കിത് നേരെ നേരത്തെ എനിക്ക് ഇൻഫർമേഷൻ തരണ്ടേ എനിക്ക് ഒരു വിവരം എന്നോട് പറയണ്ടേ ഡ്രൈവർക്ക് സുഖമില്ല എൻ്റെൽ വേറെ ഡ്രൈവറില്ല വേറെ വേറെ സ്പെയറായിട്ട് ഡ്രൈവറില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് ഡ്രൈവറ് വരില്ല ട്ട് പ്രോഗ്രാം മാറ്റി വയ്ക്കാമോന്ന് എന്നോടൊന്ന് എനിക്ക് വിവരം തരണ്ടേ ഞങ്ങളിവിടെ റെഡി ആയിട്ട് നിൽക്കാണെന്നെ ഞങ്ങളിവിടെ റെഡിയാണ് ഞങ്ങൾ പോവാൻ തയ്യാറായിട്ട് നിൽക്കാണ് ഒരുങ്ങി നിൽക്കാണ് ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ ഡ്രൈവറെ വിടുമോ ഡ്രൈവറെ വിടുമോ എപ്പോൾ എപ്പോഴത്തേക്ക് ഡ്രൈവറെ വിടാൻ പറ്റും ഡ്രൈവറെ വിടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അരമണിക്കൂറിനുള്ളിലെങ്കിലും അത് ഒൻപത് ഇപ്പോൾ തന്നെ മണി എട്ടരയായി അരമണിക്കൂറിനുള്ളിൽ ഡ്രൈവറ് വരുമോ അല്ല പറ്റില്ല എന്നാൽ പിന്നെ നിങ്ങൾ നേരത്തെ വിവരം പറയണ്ടേ വിവരം പറഞ്ഞെങ്കിൽ എനിക്ക് ഞാൻ ഇവിടെ ലോക്കൽ ആരെങ്കിലും ഡ്രൈവറെ വേറെ ഞാൻ പിടിച്ചേനെ അപ്പോൾ നിങ്ങൾടടുത്തൂന്ന് ഞാൻ ഡ്രൈവറെ വിളിച്ച് വിളിക്കാണെങ്കിൽ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസായിട്ടുള്ള ആൾക്കാരെ കിട്ടുമല്ലോ അവരിങ്ങനെ പോവുന്ന ആൾക്കാരല്ലെ അപ്പോൾ അങ്ങനെ സൗകര്യം ആ ഒരു സൗകര്യം നോക്കിയാണ് ഞാൻ അവിടെന്നൊരു ഡ്രൈവറെ ആവശ്യപ്പെട്ടത് അത് നിങ്ങൾക്കവിടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അത് പറയണ്ടേ നിങ്ങളുടെ ബുദ്ധിമുട്ട് നമ്മളെ നേരത്തെ വിവരമറിയിക്കണം അല്ലാതെ ഞാൻ ഞങ്ങളിവിടെ റെഡി ആയി നിന്ന് ഒരുങ്ങി നിന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇപ്പം വ ഇത് ഇതുവരേം വിളിച്ചില്ലല്ലോ അങ്ങോട്ട് ഞങ്ങൾ അങ്ങോട്ട് പരാതി വിളിച്ച് ചോദിച്ചപ്പോഴല്ലേ പറഞ്ഞത് ഡ്രൈവർക്ക് പനിയാണ് സുഖമില്ല വരില്ല അപ്പം നിങ്ങൾ വേറെ ഡ്രൈവറെ വിടണം വരത്തില്ലെങ്കിൽ അത് പറയണം ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ നമ്മുടെ പ്രോഗ്രാമല്ലേ നമ്മളൊരു പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നതല്ലേ ആ ഇല്ല അപ്പം എങ്ങനാണ് വിടുമോ അര മണിക്കൂറോ ആ അരമണിക്കൂറിൽ വരണം അതിൽ കൂടുതൽ താമസിക്കാൻ പറ്റില്ല അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും ആ ആ വേറെ വേറെ കുറച്ച് അറിയാൻ വേണ്ടീട്ട് എക്സ്പീരിയൻസുള്ളവരെ വിടണം അല്ലാണ്ട് ഡ്രൈവറില്ലാന്നും പറഞ്ഞിട്ട് ആരേലും പിടിച്ച് വിടരുത് ആ നമ്മളിച്ചിരെ ഉൾപ്രദേശത്തൊക്കെ പോകുന്നത് അപ്പോൾ ഞാൻ ഡ്രൈവറോട് ഒരു കാര്യം കൂടി പറയണം വരുന്ന ആളിനോട് പറയണം അവിടെ ഇപ്പോൾ അവിടെ വന്ന് ബഹളം വയ്ക്കരുത് ദൃതി വയ്ക്കരുത് ചിലപ്പം ഇച്ചിരി വൈകും വരാനായിട്ട് നമ്മൾ താമസിച്ചല്ലേ പോകുന്നത് ആ താമസിച്ച് പോകുമ്പോൾ വരാനും താമസിക്കും അപ്പോൾ ഡ്രൈവർക്ക് രാവിലെ അഞ്ച് മണിയാവുമ്പോൾ ആറ് മണിയാവുമ്പോൾ അയ്യോ പോയി എനിക്ക് കണ്ണ് കാണത്തില്ല അല്ലേ എനിക്ക് ബുദ്ധിമുട്ടാണെന്നും പറയാനൊന്നും അങ്ങനത്തെ ഉള്ളവരെയൊന്നും വിടരുത് നല്ല ആൾക്കാരെ തന്നെ വിടുക നോക്കട്ടെ ഇത്രേം താമസിക്കരുതിനിയും അരമണിക്കൂറിനുള്ളിൽ എങ്ങനായാലും വരണം

ആ ചിലപ്പോൾ വരാനൊക്കെ ഇച്ചിരി താമസിക്കും വരാൻ ഇച്ചിരെ താമസിക്കും സ്വല്പം താമസിച്ചാലും അതിലൊന്നും ഡ്രൈവറോട് പറയണം കിടന്ന് ബഹളം വെക്കരുത് ആ അത് അപ്പം ഡ്രൈവറിൻ്റെ പൈസയോ പൈസ ആരുടെ കൊടുക്കണം നിങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതിയോ അതോ ഡ്രൈവർടെ കയ്യിൽ കൊടുക്കണോ ഡ്രൈവർടെ കയ്യിൽ കൊടുത്താൽ മതിയോ കൊടുത്തേക്കാം എത്രയാണ് ഒരു ദിവസത്തെ റേറ്റ് അന്ന് നമ്മൾ പറഞ്ഞത് അത് തന്നെയാണോ അതോ പുതിയ ആൾക്കാർക്ക് പുതിയ റേറ്റ് വല്ലതും ഉണ്ടോ

ആയിരത്തി ഇരുന്നൂറോ അന്നെന്നോട് അത്ര അല്ലല്ലോ പറഞ്ഞത് ഓ ഡ്രൈവർക്ക് ഒരു ദിവസത്തേക്ക് ഡ്രൈവർക്കെത്ര സാധാരണ ആയിരം രൂപയൊക്കെയല്ലേ കൊടുക്കുന്നത് അല്ല ഫുഡ് ഫുഡ് നമ്മുടെ സൈഡീന്ന് ഫുഡ് നമ്മൾ നമ്മൾ ആഹാരം കഴിക്കുമല്ലോ പോകുന്ന വഴിക്ക് അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നോ ഡ്രൈവറും കഴിക്കും

ആയിരത്തി ഇരുന്നൂറ് കൊടുക്കണം ആ കൊടുത്തേക്കാം ശരി എന്നാൽ പെട്ടന്ന് പെട്ടന്ന് ശടേന്ന് ആളിനെ വിട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ